ഹലോ അതെ ആ ആ പഠിക്കുന്നൊക്കെ ഉണ്ട് എന്താണെന്നറിയില്ല പഠിക്കുന്നുണ്ട് എന്നാലും കുറച്ചൊരു മടിയാണ് ആ ഫോണിലെ കളിയുണ്ട്

ആ പഠിക്കാൻ പറയുമ്പോഴൊക്കെ മടിയാണ് ആയിക്കോട്ടെ ആ

ആ ആ ആ ഇനിയിപ്പോൾ ഫോൺ വല്ല ഫോണിലായിട്ടായിരിക്കുവോ പിന്നെ വൈകുന്നേരം വന്നാലും ഫോണിൽ പിന്നെ രാത്രിയും അധികം ഫോണിൽ തന്നെ അതുകൊണ്ടായിരിക്കും അതെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് പഠിക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഫുൾ ദേഷ്യവും കളിയൊക്കെ ആണ് ആ ആ

ആ നിർത്താം ഉം നിർത്താം നിർത്താം അല്ല ആ അങ്ങനെ പഠിച്ചോട്ടെ ട്യൂഷൻ ഒക്കെ ഉള്ളത് നല്ലതാണ് ആ ആയിക്കോട്ടെ

ആ ആയിക്കോട്ടെ ഞാനിനി ശ്രദ്ധിക്കാം ആ എളുപ്പമാണല്ലേ ഞാനിനി ശ്രദ്ധിച്ചോളാം ട്യൂഷന് വിട്ട് ആ ആയിക്കോട്ടെ ഇല്ല ഇല്ല ഓക്കേ എന്നാൽ ആയിക്കോട്ടെ